ഞാൻ എൻ്റെ സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു സയൻസ് എക്സിബിഷൻ കണ്ടിട്ടുണ്ട് അത് എന്നേയും കാട്ടിയൊരു രണ്ടുവയസ്സിനോ അല്ലെങ്കിൽ മൂന്നു വയസ്സിനോ മുതിർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് സയൻസ് എക്സിബിഷനിൽ വച്ചിട്ടുള്ള ഓരോ കാര്യവും ഉണ്ടാക്കിയിട്ടുള്ളത് ആ എക്സബിഷൻ കണ്ട ഒരു സമയത്ത് എനിക്ക് തോന്നിയത് അവിടെയുള്ള ഓരോ സാധനങ്ങളും നമ്മൾ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ചിന്തിപ്പിക്കാനും ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണങ്ങൾ പ്രകൃതി ഒരുപാട് മലിനീകരണമായിരിക്കുന്ന സമയമാണിത് അതു ജനങ്ങൾക്ക് കാട്ടികൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഞാൻ ആ സയൻസ് എക്സിബിഷനിൽ കണ്ടിട്ടുണ്ട് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെതന്നെ വെള്ളം ജലം സംരക്ഷിക്കാനുള്ള ഒരുപാട് വഴികൾ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ഇതാക്കാം അതുപോലെത്തന്നെ കാടുകളിൽ വന്യമൃഗത്തിനെ അത് ഇത് വന്യമൃഗം കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവങ്ങളൊക്കെ കുറയ്ക്കാൻ കാടുകളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അതായത് അതും സയൻസുമായി ബദ്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ആ സയൻസ് എക്സിബിഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഇനിയും ഒരുപാട് ഇതുപോലത്തെ എക്സിബിഷൻസ് കാണുവാൻ ആഗ്രഹം തോന്നി കാരണം ഞാൻ കണ്ടത് ഒരു സയൻസ് എക്സിബിഷനാണ് പക്ഷേ അത് പൂർണ്ണമായും സയൻസുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഡെയ്ലി ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് അവർ ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഉള്ളത് നമ്മളത് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നതും നമ്മൾ ഓരോന്നു ചിന്തിക്കുന്നതും ഒക്കെ നമുക്ക് തോന്നും അത് ഓരോന്ന് കാണുമ്പോഴും